നമ്മളൊരു മൃഗത്തെ പ്രോസസ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് സാധാരണ ഗതിയില് ഈ പോത്ത് അങ്ങനെയുള്ളവയാണ് അല്ലെങ്കില് അങ്ങനെ അങ്ങനെയുള്ളതിനെയല്ലെ നമ്മള് കൂടുതൽ പോത്തിനെയൊക്കെയാണ് നമ്മള് വളർത്ത് അതായത് ഒരു കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അറക്കാനായിട്ട് നമ്മള് അവയെയാണ് സാധാരണ വാങ്ങിച്ചു നിർത്തി അതിനെ നമ്മള് വളർത്തി നല്ല രീതിയില് അതിനെ വളർത്തിക്കൊണ്ടു വന്ന് എന്നിട്ട് അതിനെ നമ്മള് അറക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പം അതിനകത്ത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര തുടക്കം തൊട്ട് നല്ല ഇനത്തിൽപ്പെട്ട ഈ പറഞ്ഞത് പോലെ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെതന്നെ നല്ല ഇനത്തിൽപ്പെട്ട മൃഗ പോത്തിനെ അല്ലെങ്കിൽ ഏത് മൃഗത്തെ നമ്മള് സാധാരണ പോത്തിനെയാണ് അപ്പോൾ പോത്തിനെ തന്നെ പറയുന്നതാണ് നല്ലത് നമ്മള് ഏറ്റവും നല്ലതായിട്ട് പോത്തിനെ തന്നെ നമ്മള് നല്ല ഇനത്തിൽപ്പെട്ടവയെ വാങ്ങിക്കുക നോക്കി വാങ്ങിക്കുക എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക അതായത് പോത്തിനെയൊക്കെ സംബന്ധിച്ച് നല്ല രീതിയില് തണുപ്പും നല്ല കുടിയും കൊടുത്താ മാത്രമേ അതുങ്ങക്ക് നല്ല രീതിയില് അതുങ്ങള് ഇറച്ചി വെക്കത്തുള്ളൂ അപ്പോൾ ഇറച്ചി വെക്കുന്ന രീതിയില് അതുങ്ങളെ നമ്മള് അങ്ങനെ കൊണ്ട് വളത്തുക നല്ല ഭക്ഷണം കൊടുത്ത് അത് ഒരു ശകലം പോലും പട്ടിണികിടാതെ നല്ല രീതിയിൽ അതുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അതുങ്ങളെ വളർത്തി പൊടിയും കുടിയും കൊടുത്ത് നല്ല നല്ല പരിപാലനം കൊടുത്തു വളർത്തി എന്നിട്ട് നല്ല രീതിയില് ഒക്കെ ഉണ്ടെങ്കിലൊരു നൂറു കിലോ ഒക്കെ വരുന്നത് വരു നൂറിനു മുകളില് വരുന്ന ഏറ്റവും നല്ലത് അതുവരെയൊക്കെ നമ്മള് നല്ല രീതിയില് അതുങ്ങളെ വളർത്തി നല്ല ഇനത്തിൽപ്പെട്ടവയാണെങ്കില് നമുക്ക് അത് കൂടുതലൊക്കെ കിട്ടും നല്ല നല്ല അപ്പോൾ നല്ലൊരു നല്ല നല്ലരീതി പണം സമ്പാദിക്കാനും പറ്റും കാരണം എന്നാന്നുവെച്ചാല് നല്ല വിലയാണ് ആ ഇറച്ചിക്ക് അപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ അതിനെ വളർത്തി നല്ല വലിപ്പവും നല്ല ഒരു തൂക്കവും ആകുന്നിടം വരെ ഒരു നൂറു നൂറ്റമ്പത് കിലോ ഒക്കെ ആകുന്നതും വരെയൊക്കെ അതുങ്ങളെ വളർത്തി കൊടുക്കുവാണെങ്കി നമുക്ക് നല്ലരീതിയിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും അതാണ് എനിക്ക് ഇതിനാത്തിന്നും പറയാനുള്ളത് അങ്ങനെ നല്ല നിലവാരത ഗുണനില നല്ല ഗുണം കിട്ടണം നല്ല ഗുണനിലവാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല ഇനത്തിൽ പെട്ടവയെ വാങ്ങണം നല്ല ഇനത്തിൽപ്പെട്ടവയെ വാങ്ങിച്ചാൽ മാത്രം പോരാ അതുപോലെ നമ്മളവരെ സംരക്ഷിക്കുകയും വേണം സംരക്ഷിച്ചാൽ മാത്രമെ നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇറച്ചി ഉണ്ടാകത്തുള്ളൂ അത് നമുക്ക് കൊടുത്താൽ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളു